ഗ്രാമ പ്രദേശത്തുള്ള കർഷകര് പലതരത്തിലുള്ള വെല്ലുവിളികളും വെല്ലുവിളികൾ സഹിക്കുന്നുണ്ട് അതുപോലെ ദുസ്സഹനീയമായ സാഹചര്യങ്ങളിലൂടെ കടന്നുപോകുന്നത് കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കു വേണ്ടതായ അവിടെ കൃഷിക്ക് വേണ്ടതായ ഒന്നും തന്നെ ലഭിക്കുന്നില്ല ധനസഹമായിട്ടും അതുപോലെ മറ്റേ സബ്സിഡി തുടങ്ങി ഒരുപാടു കാര്യങ്ങളെ ഇതൊന്നും അവർക്ക് ലഭിക്കുന്നില്ല അവരെ അവരെ ഈ ഇവര് മറന്നത് പോലെയാണ് അവരെന്തോ അവർക്ക് വേണ്ടി ചെയ്യുന്നതുപോലെയാണ് മറ്റുള്ളവരുടെ പെരുമാറ്റവും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഈ കാലാവസ്ഥയിലുണ്ടാകുന്ന മാറ്റവും അതുമൂലം അവരുടെ കൃഷിക്ക് സംഭവിക്കുന്ന കാര്യങ്ങളും ഒന്നും മറ്റുള്ളവർ തിരക്കുന്നില്ല അതുപോലെ സാങ്കേതികപരമായി അവർക്ക് പല തരത്തിൽ അവര് ഇപ്പോഴും മുമ്പന്തിയിലെത്തിയിട്ടില്ല അവരിപ്പോഴും പരമ്പരാഗതമായ കൃഷിരീതി തന്നെയാണ് യൂസ് ഉപയോഗിക്കുന്നത് അതുകൊണ്ടുതന്നെ അവരൊക്കെ അത് പലതരത്തിലുള്ള വെല്ലുവിളികളാണ് അവരിപ്പം ചെറുകിട കർഷകരാണെങ്കിലും വൻകിട കർഷകരാണെങ്കിലും ഒരുപാടു വെല്ലുവിളികൾ അവര് നേരിടുന്നുണ്ട്